തീര്ച്ചയായിട്ടും ആയോധനകലകള് എന്റെ ഏകാഗ്രതയെ വളരെയധികം കൂട്ടിയിട്ടുണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കതിനുള്ള ഫോക്കസ് വേണം നോക്ക് നമ്മള് ഇപ്പോള് ഏതൊരായോധനകല ചെയ്യുകയാണെങ്കിലും എപ്പോഴും നമ്മളാ പറഞ്ഞെ എന്താണെന്ന് കേള്ക്കണം പറഞ്ഞെ എന്താണെന്ന് നമ്മള് മനസ്സിലാക്കണം അപ്പോള്ത്തന്നെ നമ്മുടെ എ ഓരോ കാഴ്ച്ചപ്പാട് വികസിക്കും അതുപോലെതന്നെ നമുക്കോരോ കാര്യത്തിലേക്കുള്ള ശ്രദ്ധ വികസിക്കും എങ്ങനൊരുകാര്യം ചെയ്യണമെന്നുള്ളത് വികസിക്കും അതുപോലെതന്നെ ഏതൊരുകാര്യം ഏതൊരു സാഹചര്യത്തില് എങ്ങനെ നേരിടണമെന്നുള്ളത് വികസിക്കും ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സംഭവത്തിലേക്കുള്ള കോണ്സെണ്ട്രേഷന് വര്ദ്ധിക്കും അപ്പോള് ഏകാദിടത ഏകാ ഏകാഗ്രത വളരെയധികം കൂടാന് ഈ ആയോധനകലകള് വളരെയധികം സഹായിക്കുന്നൊരു കാര്യമാണ് അതുപോരതന്നെ അത് ഇ ഇതേ കാര്യം നമുക്ക് പഠനത്തിലേക്കെടുക്കാം നമുക്കേതൊരു കാര്യം ചെയ്യാന് പറ്റും നമുക്കിപ്പോള് ഈ ആയോധനകലയാണെപ്പോലും നമ്മള് ചെല്ലുന്ന ഉടനേ നമുക്കെല്ലാം ചെയ്യാന് പറ്റുമോ ഒരിക്കലും ചെയ്യാന് പറ്റില്ല നമ്മളത് വീണ്ടും ചെയ്ത്ചെയ്ത്ചെയ്ത് നമുക്ക് ശീലമായി ചെയ്യാന് പറ്റും ചെയ്യാന് പറ്റും ആ ചെയ്യാന് പറ്റാത്തതായിട്ടൊന്നുമില്ല എല്ലാം എല്ലാര്ക്കും ചെയ്യാന് പറ്റും പക്ഷെ നമുക്കീ ആയോധനകലകള് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്വയം ഒരു സ്ട്രെങ്ങ്ത് അല്ലെങ്കില് മ്മറ്റിച്ച് മനസ്സിനാണേലും ശാരീരികപരമായിട്ടാണ് മാനസികപരമായിട്ടാണ് നമുക്ക് ഭയങ്കരമൊരുശക്തി വന്ന് ആ ശക്തി നമ്മളെ എവിടെയും സഹായിക്കും ആ ശക്തിയുടെ കൂടെ നമുക്ക് പഠിക്കാന് സഹായിക്കും നാളെ അതില്നിന്ന് കിട്ടുന്ന ഏകാഗ്രത ശക്തി മനസിന്റെ ശ കായികമായിട്ടുള്ള ശക്തി മാത്ര ഡേ ഈ മാ ഏതൊരായോധനകലയ്ക്കും മാനസികമായിട്ടുള്ള ശക്തി വികസനമുണ്ട് അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്താലും കായികമായിട്ടും മാനസികായിട്ടും ശക്തി കിട്ടും മാനസികായിട്ടും ഏകാദ്ര ഏകാധ്രിതമായിട്ടും മാനസികമായിട്ടുള്ള ശക്തി കിട്ടും മാനസികമായിട്ട് ഏതൊരു കാര്യത്തിനും തയ്യാറെടുക്കാന് മെ മാനസികമായിത്തൊരു കാര്യത്തിനും പേടിയില്ലാണ്ട് പരീക്ഷകളോട് എല്ലാത്തിനും ധൈര്യത്തോടുകൂടി നേരിടുകയും മുന്നോട് മുന്നോട്ട് കുതിക്കാന് പറ്റുകയും ചെയ്യും അതുപോലെതന്നെ കാല് കായികത്തിനെ വളത്തിയൊ കലകള്ക്ക് ഇതിന് വളരെയധികം പങ്കുണ്ട് ഏതൊരു കാര്യത്തിനും ശ്രദ്ധ കേന്ദ്രീക്കാന് കേന്ദ്രീരിക്കാനുള്ള സഹായിക്കുന്ന വളരെയധികം ഒരു ഇമ്പോട്ടന്റായ ഫാക്റ്ററാണ് ആയോധനകലകള് അതിന് പഠനത്തിനാണേലും ഏതൊരു സാഹചര്യത്തിലാണേലും നമുക്ക് ഈയൊരു അള്ളാഹ് കരയുവാണേലും നമ്മള് സമയം നിക്ഷേപിച്ചുകഴിഞ്ഞാല് അതെപ്പോഴും ഏതൊരു സമയത്താണേപ്പോലും അത് നമുക്ക് ഗുണപ്പെടുക മാത്രമേ ഉള്ളൂ ഏകാഗ്രത കൂട്ടുന്നേല് വളരെയധികം പന്തിര പങ്ക് ആയോധനകലകള്ക്കുണ്ടെന്ന് ഞാന് വിശ്വസിക്കുന്നു